അഞ്ചു ദിവസങ്ങൾ ഒന്ന് ഒന്ന് എട്ട് പൂജ്യം മൂന്ന് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തഞ്ച് രണ്ട് രണ്ട് ഒന്ന് പൂജ്യം ഏഴ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റൊൻപത് അടുത്തത് ഒന്ന് അഞ്ച് ഒന്ന് രണ്ട് രണ്ടായിരത്തിനാല് അടുത്തത് ഒന്ന് മൂന്ന് ഒന്ന് ഒന്ന് രണ്ടായിരത്തി ഇരുപത്തിനാല് അടുത്തത് രണ്ട് നാല് ഒന്ന് രണ്ട് രണ്ടായിരത്തി അഞ്ച്